ഗതാഗത വ്യവസായത്തെ സാങ്കേതിക വിദ വിദ്യ സഹായിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ നമ്മള്ളൊരു സ്ഥലത്തേക്ക് ദൂര സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നടന്നു തന്നെ പോകണം അന്ന് ആ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇപ്പോൾ ഓരോ ഓരോ വീട്ടിലും ഓരോ വണ്ടി ഓരോ കാറും ഉണ്ട് അങ്ങനെയൊക്കെയുണ്ട് അതുകൊണ്ടു തന്നെ നമുക്ക് ദൂരെയുള്ള സ്ഥലത്തേക്കൊക്കെ പെട്ടെന്ന് എത്താൻ കഴിയും പിന്നെ ഇപ്പോൾ വേറൊരു

ആദ്യം ദൂരെക്കൊക്കെ പോണവർ കപ്പലിലും അങ്ങനെ പോയിരുന്നു അതു കുറേ ദിവസം കഴിഞ്ഞാൽ പോയടുത്തൊക്കെ എത്തുകയുള്ളു